എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഴിവുകളൊന്നുമില്ല എന്നാലും പാട്ടുപാടാന് നല്ല ഇഷ്ടമാണ് പാട്ടുപാടാറുമുണ്ട് ഫോണിലൂടെ ഓരോ പാട്ടും ഒക്കെ പാടാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് എന്തിനാണെങ്കിലും നമ്മുടെ അടുത്ത് കുറച്ചു പൈസ വേണം എന്തിന് ഇറങ്ങുകയാണെങ്കിലും അപ്പോൾ പിന്നെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്തിരിയുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ ഇപ്പോൾ പാടാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് ഫേയ്മസ് ആവും അതിനോടൊപ്പം പൈസയും കിട്ടും നമ്മള് കൊടുക്കുന്നതിന് ഏറെ പൈസ ഇങ്ങോട്ട് കിട്ടും എന്നാണ് അവര് പറയുന്നത് പക്ഷേ നമ്മളെ അടുത്ത് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അനങ്ങാണ്ടിരിക്കുകയാണ് എന്നാലും പാട്ട് കേൾക്കാനും പാടാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും ഇഷ്ടമാണ് ഓരോരുത്തരുടെ ഡാൻസ് കളിക്കുന്നതോ പാട്ടുപാടുന്നതോ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും ഇഷ്ടവും ഒക്കെയാണ് അവരുടെ കൂടെ പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ തോന്നാറുണ്ട് എന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കാറും ഇല്ല പല അവസരങ്ങളിലും നമുക്ക് ആഗ്രഹണ്ടങ്കിലും നമുക്ക് അത് സാധിക്കാറില്ല കോളേജിലാണെങ്കിലും സ്കൂൾ ടൈമ്സിലൊക്കെ ആണെങ്കില് ഒരുപാട് ഞാൻ ഡാൻസ് കളിച്ചിട്ടും പാട്ടുപാടിയിട്ടും ഒക്കെ ഉണ്ട് എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാ ഫാമിലിയായി പുറത്തേക്ക് ഇറങ്ങാനോ ഡാൻസ് കളിക്കാനോ പാട്ടുപാടാനോ ഒരുപാട് മടിയാണ് എന്നാലും ഇഷ്ടം ഒക്കെ തന്നെയാണ്